പ്രശസ്ത റഷ്യൻ സാഹിത്യകാരനായ യൂറിൻ നജീബ് എന്ന കഥാകൃത്തിൻ്റെ ഒരു നല്ലൊരു കഥയാണ് ശിശിരത്തിലെ ഓക്കുമരം അതില് അന്നാവാസ്ലിവ്ന എന്നൊരു അധ്യാപികയുടെയും സവിഷ്കിൻ എന്ന ഒരു കൊച്ചുകുട്ടിയുടെയും കഥയാണ് അതിൽ പറയുന്നത് സവിഷ്കിൻ എന്നും ഒരു മണിക്കൂർ നേരത്തെ വീട്ടില് ക്ലാസ്സിലേക്ക് പുറപ്പെടുകയും വഴിയില്വച്ച് കാണുന്ന എൽക്കിനോടും ഓക്കുമരത്തിനോടും സകലജീവജാലങ്ങളോടും വർത്തമാനം പറഞ്ഞവൻ ക്ലാസില് എന്നും വൈകിയാണു വരുന്നത് എന്നും വൈകി വരുന്ന സവിഷ്കിനെ അന്നാവാസ്ലിവ്ന ടീച്ചര് വളരെയധികം ശാസിക്കുകയും വഴക്കു പറയുകയും എനിക്ക് നിൻ്റെ അമ്മയെ കാണണം എന്നുപറയുകയും ചെയ്യുകയാണ് അപ്പോള് തീർച്ചയായും ടീച്ചർ അമ്മയ്ക്ക് മൂന്ന് മണിക്ക് ജോലിക്ക് പോകണം അതുകൊണ്ട് രണ്ട് മണിയാവുമ്പോള് ടീച്ചര് വരിക എന്നവൻ പറയുകയാണ് അപ്പോള് അവന്റെ ഒപ്പം രണ്ട് മണിക്ക് അന്നാവാസ്ലിവ്ന ടീച്ചർ ഇറങ്ങുകയാണ് അവൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയില് കാടിൻ്റെ നടുക്ക് പ്രൗഢമായി നിൽക്കുന്ന ശിശിരത്തിലെ ഓക്കുമരത്തെ കാണിച്ചുകൊടുക്കുകയും അതിലെ ഓരോരോ കാര്യങ്ങള് ടീച്ചർക്ക് പറഞ്ഞുകൊടുക്കുകയും അവൻ ചെയ്യുകയാണ് പിന്നെ സവിഷ്കിൻ്റെ ഓരോരോ നിരീക്ഷണപാടവും ടീച്ചർ ശ്രദ്ധിക്കുകയാണ് വളരെ കൗതുകത്തോടെ അവൻ ടീച്ചർ നോക്കുകയാണ് മഞ്ഞുമൂടിയ കാടിനുള്ളിൽ കൂടി സവിഷ്കിൻ തൻ്റെ ടീച്ചറെ വീട്ടിലേക്ക് നയിക്കുകയാണ് മരക്കൊമ്പുകളും തലപ്പൊക്കമുള്ള മാമരങ്ങളും കാട്ടരുവികളെല്ലാം ടീച്ചറിന് അവൻ കാണിച്ചുകൊടുക്കുകയാണ് മഞ്ഞിൽപൊതിഞ്ഞ കുളമ്പടിപ്പാടുകൾ എൽക്കിന്റെതാണെന്നും അരുവികൾ പലേടത്തും മഞ്ഞുമൂടി കിടക്കാത്തത് ചൂട് നീരുറവ ഉള്ളതുകൊണ്ടാണെന്നും ടീച്ചറിന് അവൻ പറഞ്ഞുകൊടുക്കുകയാണ് ക്ഷേത്രഗോപുരം പോലെ പ്രൗഢമായി ശിശിരത്തിൽ ഓക്കുമരം നിലകൊള്ളുന്നതും മഞ്ഞിൻ്റെ വെള്ളപ്പുതപ്പണിഞ്ഞ ആ ഭീമാകാരത്തിൻ്റെ ചുറ്റും ജീവികള് അഭയം കണ്ടത്തിയിരിക്കുന്നത് ഒക്കെ അവൻ പറഞ്ഞുകൊടുക്കുകയാണ് ആ വന പ്രദേശത്തെ ഓരോരോ അതിശയങ്ങളും കൗതുകത്തോടെ സവിഷ്കിൻ വിവരിക്കുമ്പോൾ അവൻ്റെ ചൂണ്ടുവിരൽ പിടിച്ച് ചൂണ്ടുവിരൽ പിടിച്ച് അത്ഭുതത്തോടെ നിറഞ്ഞ കണ്ണുകളോടെ എല്ലാം നോക്കിനിൽക്കുകയാണ് ടീച്ചറായ അന്നാവാസ്ലിവ്ന ശിശിരത്തിൽ ഓക്കുമരം എന്ന വാക്കുമാത്രമേ അർഥവർത്താവു എന്ന അന്നാവാസ്ലിവ്ന പൊടുന്നനെ മനസ്സിലായി മാത്രമല്ല സമയം മുന്നാകാലധികമാണെന്ന് ആയിരിക്കുന്നു എന്നും താൻ വൈകി ഇരിക്കുന്നു എന്നും അവൾ മനസ്സിലാക്കുകയും അടുത്ത ദിവസം സവിഷ്കിൻ്റെ അമ്മയെ പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി അന്നാവാസ്ലിവ്ന ടീച്ചർ മടങ്ങുകയാണ് തൻ്റെ വനഭൂമിയെപ്പറ്റി അതിയായ ജാഗ്രത പുലർത്തുന്ന സവിഷ്കിനോട് യാത്ര പറഞ്ഞ് അന്നാവാസ്ലിവ്ന തിരിഞ്ഞുനടക്കുമ്പോൾ അവരുടെ കാഴ്ചയിൽ അപ്പോഴും ആ മനോഹരമായ ഹിമസാമ്രാജ്യത്തിൻ്റെ സംരക്ഷകൻ എന്നപോലെ ആ കുഞ്ഞു മനുഷ്യൻ അതായത് നമ്മുടെ സവിഷ്കിൻ കാണപ്പെടുകയാണ് ഇതില് അന്നാവാസ്ലിവ്ന ടീച്ചര് മനസ്സിലാക്കിയാണ് ആ കുട്ടി സവിഷ്കിൻ അവൻ പുള്ളിക്കാരിക്ക് കാണിച്ചുകൊടുക്കുകയാണ് നാലു ചുവരുകൾക്ക് ചുമരുകൾക്കിടയിൽ ഒതുങ്ങുന്ന ക്ലാസ് റൂം മാത്രമല്ല അറിവ് നേടാനുള്ള സ്ഥലം ഈ കാടും അതിനൊരു വഴി ഒരുക്കുന്നു എന്ന് ടീച്ചറിനെ അവൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്